ആ അതെ പറയൂ ആ എന്താണ് വേണ്ടത് ആ നിങ്ങൾക്ക് ഏത് തരം പൂക്കളാണ് വേണ്ടത് ഞങ്ങൾക്കിവിടെ റിയൽ ആയിട്ടുള്ളതും ഉണ്ട് പ്ലാസ്റ്റിക്കും ഉണ്ട് റിയൽ ആയിട്ടുള്ളത് ആണെങ്കിൽ പൈസ കൂടുതൽ ആണ് കാരണം അത് നമ്മൾ ഫ്രഷ് ആയിട്ട് കൊണ്ട് വരുന്നതാണ് പ്ലാസ്റ്റിക്കാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് എല്ലാ നിറത്തിൽ ഉള്ളത് അവൈലബിൾ ആണ് ഏത് കളർ പൂവാണ് നിങ്ങൾക്ക് വേണ്ടത് ഓരോ പൂവ് അനുസരിച്ച് ഇരിക്കും അതിൻ്റെ വില ആ റോസാപ്പൂവും താമരയും നമ്മൾക്കുണ്ട് പിന്നെ പച്ച നിറത്തിനാണെങ്കിൽ നമ്മൾക്ക് ഇല വയ്ക്കാവുന്നതേ ഉള്ളു റോസിന് ആണെങ്കിൽ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപതോളം വരും താമരയ്ക്ക് ഒരു പൂവിന് പത്ത് രൂപ ആണ് ഇപ്പം നിങ്ങൾക്ക് എത്ര ആണ് വേണ്ടത് ആ താമരയോ ആ ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാമേ അഞ്ഞൂറ് അഞ്ഞൂറ് കിലോ ആണെങ്കിൽ റോസിന് ഏകദേശം ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് വരും അത് പോലെ താമര മുന്നൂറ് കിലോ ആണല്ലേ ആ അപ്പോൾ ഒരു മൂവായിരം രൂപക്ക് അടുപ്പിച്ച് വരും ഞങ്ങൾക്കിപ്പോൾ വെള്ളയും പിങ്കും അവൈലബിൾ ആണ് താമര ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ ഓക്കെ ആ നിങ്ങൾ ഇത്രയും നിങ്ങൾ ഇത്രയും ബൾക്ക് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഒരു പത്ത് പെർസെൻ്റ് ഡിസ്കൗണ്ട് തരാം ആ ഞാൻ അയച്ചേക്കാം ആ ഞാൻ എത്തിക്കാം എന്നെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിച്ചാൽ മതി പിന്നെ എല്ലാം ശരി ആക്കിയിട്ട് ഞാൻ പറയാം ആ ഓക്കെ ശരി